ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഞാൻ ഒരു പുതിയൊരു ലൈഫ് ഇൻഷുറൻസിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ആ നമുക്ക് ഒരു പോളിസി വന്നിട്ടുണ്ട് അതായത് ടോട്ടലി ഫാമിലി പാക്കേജ് ഉണ്ട് അതായത് ടൈപ്പ്സ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ നമ്മുടെ ഏജൻസി പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നാമത്തേത് ലൈഫ് ഇൻഷുറൻസ് ആണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വണ്ടിയുടെ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഹോൾ ഫാമിലി പാക്കേജ് ഉണ്ട് അങ്ങനെ ആ കുറേ ഇൻഷുറൻസ് ഉണ്ട് ഇതിൽ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈഫ് ടൈം ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇയർലി ഒരു ടെൺ തൗസന്റ് റുപ്പീസ് ആണ് ഇടുന്നതെങ്കിൽ നമുക്കൊരു ഇപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സിനുള്ളിൽ ഒരു ആക്സിഡന്റ് വരികയാണെങ്കിൽ അതിൻറെ എല്ലാ ഫുൾ പാക്കേജും ഞങ്ങളുടെ ഏജൻസി എടുക്കുന്നതായിരിക്കും സാറിന് സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഹോസ്പിറ്റൽ ചിലവുകളെല്ലാം നമ്മൾ എടുക്കും ഇപ്പോൾ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് വരണം പറഞ്ഞിട്ടല്ല നമ്മൾ പറയുന്നത് എങ്കിൽപ്പോലും ജീവിതമാണ് എന്താണ് എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ പാക്കേജസ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണ് ലൈഫ് ടൈം ഇൻഷുറൻസ് വരുന്നത് അതായത് ജീവിതകാലം മുഴുവൻ നമ്മൾ ഇയർലി ടെൻ തൗസന്റ് ആണ് പറയുന്നത് അപ്പോൾ ലൈഫ് ലോങ്ങ് അതായത് ഇയർലി ലൈഫ് ടൈം ഇൻഷുറൻസാണ് ഇയർലി ടെൻ തൗസന്റാണ് നമ്മൾ പേ ചെയ്യേണ്ടത് പക്ഷെ ആ ആ ആക്സിഡൻറ് ഉണ്ടാവുകയാണെങ്കിൽ ഫുൾ പാക്കേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ടെൻ ടൂ ഫിഫ്റ്റീൻ ലാഖ്സിന്റെ ഉള്ളിലാണ് നമ്മുടെ പാക്കേജ് വരുന്നത് അതെ ആ ടെൻ തൗസന്റ് റുപ്പീസിനാണെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റീൻ ലാഖ്സാണ് ലൈഫ് ടൈം എന്ന രീതിയ്ക്ക് ഫിഫ്റ്റീൻ ലാഖ്സ് ആണ് നമുക്ക് വരുന്നത് പാക്കേജ് പിന്നെ വരുന്നത് ഇപ്പം നമ്മളിപ്പം ഫൈവ് തൗസന്റ് ഒക്കെ ആണെങ്കിൽ ഒരു സെവൻ ടൂ എയിറ്റ് ലാക്ക്സ് ആയിരിക്കണം ഇവിടെ പാക്കേജിൽ ഉണ്ടാകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അത്രയും രൂപയായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക ഇത് വൺ പേഴ്സൺ ആണ് ഒരു ഒരാൾക്ക് ഉള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഹോൾ ഫാമിലി പാക്കേജ് ആണെങ്കിൽ ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം നമ്മുടെ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഒരു അമ്മ അച്ഛൻ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണ് അമ്മ അച്ഛൻ മകൾ അങ്ങനെ ഒരു രീതിയ്ക്ക് ആണെങ്കിൽ ഇത് കുട്ടി എന്ന രീതിയ്ക്ക് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു പാക്കേജാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതും സിമിലറാണ് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സിനുള്ള ഒരു പാക്കേജ് ആണ് വരണത് നമ്മളിപ്പൊൾ ഒരു ഇയർലി അതിന് ആ ഫാമിലി പാക്കേജ് ആകുമ്പോൾ ഇയർലി ട്വന്റി തൗസന്റാണ് നമ്മൾ പേ ചെയ്യേണ്ടത് പക്ഷേ ഒരു ഫൈവ് ടൂ സിക്സ് ഇയേഴ്സിനുള്ളിൽ നമുക്ക് ട്വന്റി ടു ട്വന്റി ഫൈവ് ലാഖ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അത്രയും അത്രയും രൂപയുടെയാണ് നമ്മുടെ പാക്കേജ് വരുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് വളരെ നല്ലതാണ് കാര്യം നമുക്ക് എന്താണ് എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും കാലിൽ പോയി വീഴേണ്ട ആവശ്യമില്ല നമ്മൾക്കിപ്പോൾ കടം എടുക്കുകയൊ ചിട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരു ട്വന്റി തൗസൻറ് പേ ചെയ്താലും ഒരു നമ്മുടെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അങ്ങനത്തെ നല്ല ഗുണമുള്ള കാര്യങ്ങളാണുള്ളത് സോ സാറ് എന്താ പറയുന്നേ സാറിന് താല്പര്യമുണ്ടോ ചെയ്യാൻ ആ ഒക്കെ സാർ നമ്മളെന്തായാലും നമ്മൾ നൈൺ ടൂ ഫൈവ് വരെ നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ് സാറിന് വരാം ഡയറക്ട് വന്ന് നമുക്ക് നമ്മുടെ മാനേജറുമായിയി ആണെങ്കിൽ സംസാരിക്കാം സാറ് സംസാരിക്കുമ്പം കുറച്ചുകൂടി ഇപ്പോൾ ക്ലാരിറ്റി വേണമെങ്കിൽ സാറിനോടുകൂടി സംസാരിക്കാം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒക്കെ സംസാരിക്കാം ഇറ്റ്സ് ഓക്കേ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുണ്ട് പിന്നെ ഇനിയും പാക്കേജസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻറ് പാക്കേജുകളുണ്ട് നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ അങ്ങനെ പാക്കേജസ് ഉണ്ട് അങ്ങനെ നമ്മൾ കുറെ പാക്കേജസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഏതു വേണമെങ്കിലും നമുക്ക് നോക്കാം പക്ഷേ സാറിൻറെ ഇഷ്ടം പോലെയാണ് സാറിന് ഒക്കെയാണ് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ പാക്കേജ് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ എന്താ സാർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം എങ്ങനെയാണ് സാർ അതോ സാറ് ഡയറക്ട് ആയിട്ട് വരികയാണോ ഓക്കേ സാർ വിളിച്ചാൽ മതി ആ ഓക്കേ സർ ഓക്കെ താങ്ക് യൂ